നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാമങ്ങളിൽ കുട്ടികൾ ഫുട്ബോൾ കളിക്കാനായിട്ട് കാ അല്ലെ കാൽപന്ത് കളിക്കാനായിട്ട് അവർ കൂടുതലും യൂസ് ചെയ്യുന്ന പൊതുപ്പറമ്പുകൾ അതായത് ഇപ്പം ഒരു വ്യക്തിയുടേതാവാം അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ പറമ്പാവാം അങ്ങനത്തെ പൊതു പറമ്പുകളാണ് അവർ കൂടുതലും ഉപയോഗിക്കുന്നത് അവർക്ക് കളിക്കാനും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി അവർ ഉപയോഗിക്കുന്നത് ഇതുപോലെ ഉള്ള പൊതു പറമ്പാണ് പക്ഷെ പട്ടണത്തിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുട്ബോൾ കളിക്കാനായിട്ട് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കവിടെ ടർഫ് അതായത് മിനി സ്റ്റേഡിയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ടർഫ് ആണ് അവിടെ അവരെ പക്ഷേ ട ഈ നമ്മുടെ ഈ ഗ്രാമീണർ കളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫെസിലിറ്റീസ് കൂടുതൽ ടർഫിൽ ഉണ്ട് കാരണം അവർക്ക് ടാക്ലിങ്ങ് ഒക്കെ സ്ലൈഡ് ചെയ്ത് ടാക്കിൾ ചെയ്യാം പിന്നെ എന്നായിരുന്നു വീണാൽ പരി വല്യ പരിക്ക് പറ്റത്തില്ല അങ്ങനത്തെ കുറച്ച് വളരെ നല്ല കാര്യങ്ങൾ ഒക്കെ ഈ ടർഫിനുണ്ട് പക്ഷേ ടർഫിൽ പോവാനായിട്ട് പൈസ വേണം പക്ഷെ ഗ്രാമീണർ ഗ്രാമീണരെ നോക്കിക്കഴിഞ്ഞാൽ അവരതിൽ പുറകോട്ടാണ് കാരണം അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ടർഫിൽ പോയി കളിക്കുന്ന ആ ഒരു ഇതായിട്ടുള്ള കാര്യമല്ല ഒരു ട്രാവലിൽ തീരുന്ന ഒരു ഒരിക്കലും വരുന്നതല്ല അവരെപ്പോഴും ഡിപൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പൊതുപ്പറമ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ സ്കൂളിലെ ഗ്രൗണ്ടുകളും ചെറിയ മൈതാനങ്ങളും ഒക്കെയാണ് അവർ എപ്പോഴും ഡിപൻഡ് ചെയ്യുന്നത് പിന്നെ ഇവരെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവർ കാൽ നമ്മുടെ പട്ടണം നോക്കിക്കഴിഞ്ഞാൽ പട്ടണങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ കാലിൽ ബൂട്ട് ഒക്കെ ഇട്ടാണ് അവർ കളിക്കുന്നത് പക്ഷേ നമ്മുടെ ഗ്രാമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ പിള്ളേര് കാലിൽ ഒന്നും ഇടാതെ അതായത് ചെരുപ്പ് ഊരിയാണ് അവർ കളിക്കുന്നത് അവർക്ക് അങ്ങനെ ആണ് കളിക്കുക അതുപോലെ അവർക്ക് അത് അങ്ങനെ അവർ അവർക്ക് അങ്ങനെയാണ് കളിക്കാൻ പറ്റുന്നതും പിന്നെ ഈ മൈതാനം കൊച്ച് മൈതാനങ്ങളിൽ ഒക്കെ എപ്പോഴും ചെരുപ്പില്ലാതെ കളിക്കുന്നതും അതും അല്ല ഇവർക്ക് ബൂട്ട് മേടിക്കാനുള്ള പൈസയും സാഹചര്യം സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് ഗ്രാമങ്ങളിൽ അങ്ങനെയാണ് പിന്നെ ഇവർ തമ്മിലുള്ള വ്യത്യാസം